ഹലോ ആ അതെ അതെ അതെ അതെ മേഡം ഇതെവിടുന്നാ വിളിക്കുന്നേ ഹലോ ഇതെവിടുന്നാ സംസാരിക്കുന്നേ ആ കെ എസ് ആർ ടി സീന്നാണ് ആ ഞാ പറഞ്ഞോ സാറേ അതെ അതെ പറഞ്ഞോ എന്തോ സാറേ വിഷയം അതെ അതെ അതെ ഞാൻ ബുക്കിയ്തിട്ടുണ്ടായിരുന്നു സാറേ സീറ്റ് നമ്പർ ഇലവനാണല്ലോ

സീറ്റ് നമ്പർ ഇലവണാണ് ഇലവനാണല്ലോ സാറേ ഞാന് സീറ്റിലെ ഞാനിപ്പോള് ഓൺ ഥ വേയില് കയറുമ്പോഴാണ് ഇലവൻ ഇലവൻ ഈസ് ഓൾറെഡി അതിനകത്ത് ആൾക്കാര് കയറിക്കഴിഞ്ഞല്ലോ അത് അതിനകത്ത് ബുക്ക്ഡായിപ്പോയല്ലോ അത് എങ്ങനെ അത് എങ്ങനെയായി സാറേ അതെന്തുപറ്റിയതാ അതങ്ങനെ വരാൻ സാധ്യത

ആ അല്ല സാറേ ഞാൻ ഇലവനാണ് അപ്പോള് എനിക്കിപ്പോള് ഇലവണേ ഇലവൺ ല്ലേ എനിക്ക് എന്റെ സീറ്റ് നമ്പർ ഇലവണാണ് അപ്പോള് ഇലവണിനാത്താണ് ആള് കേ ആളുള്ളതുകൊണ്ട് നമുക്ക് എനിക്ക് ട്വൽവും കയറാം ട്വൽവിനകത്തും ഇരിക്കാം സാറേ അതെങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്തു തന്നേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് ട്രീവാൻഡ്രത്തുന്ന് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ പോകണമെങ്കില് ഇത്രയും സമയം നിന്നാല് എനിക്ക് പോവാൻ പറ്റത്തില്ല എന്റെ ബുക്കിങ് ഞാൻ ചെയ്ത ബുക്കിങിന്റെ സീറ്റ് എനിക്ക് കിട്ടിയെ പറ്റത്തുളളൂ സാറേ അതിന് എന്തുവാ എന്ത് ചെയ്താലാണ് പറ്റുന്നത് എന്തോ ചെയ്താല് പറ്റും സാറേ നമ്മള് മറ്റേ നമ്മള് ഏതെങ്കിലും ഓപ്ഷൻ കൊടുത്താലോ അല്ലെങ്കില് വേറെ ഏതെങ്കിലും ചെയ്താലോ നമുക്കത് നിർത്താൻ നമുക്കത് ആ ഇലവൻറ്റെ എനിക്കത് എന്തായാലും എനിക്ക് കിട്ടിയേ പറ്റൂ ഇത്രയും നേരം എനിക്ക് നടന്നു പോവാൻ ആണോ സാറേ അത് ഏതെങ്കിലും ഓപ്ഷൻ വേറെ ആരെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോന്ന് ഒന്ന് നോക്ക് സാറേ അത് ആരെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോന്ന് ഒന്ന് നോക്ക് സാറേ എനിക്ക് ഇത്രയും ദൂരം എനിക്ക് പോയി വന്ന് നില്ക്കാന് എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ സാറേ അതെങ്ങനെ സംഭവിച്ചതാണെന്ന് ഒരു പിടിയും ഇല്ലല്ലോ ഞാനെന്തായാലും ഇലവനില് ഞാൻ സീറ്റ് ബുക്കിയ്തതാണ് എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പറ്റാതിരിക്കാൻ ബുക്കിങ്ങാണ് അപ്പോള് വേറെ ആരെ ആ ന്നെ ആരെയെങ്കിലും നമുക്ക് കിട്ടുമോ നമുക്ക് വേറെയാരെയെങ്കിലും എക്സ് അയ്യോ സാറേ അങ്ങനെ പറയാതെ സാർ എന്തെങ്കിലും ഒന്ന് മാർഗം നോക്ക് ഏതെങ്കിലും ഒരു മാർഗം നോക്കിക്കേ സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നുള്ളത് സാർ ഒന്ന് മേളില് ആരെയെങ്കിലും ഒന്ന് വിളിച്ചേ ഇത് ജി എമ്മിനെ എങ്ങാനും ഒന്നു വിളിച്ചൊന്ന് ചോദിച്ച് ജനറൽ മാനേജറെ ആരെയെങ്കിലും ഒന്ന് വിളിച്ച് ചെക്കിയ്യാൻ നോക്ക് സാറേ

നാളത്തേക്ക് അല്ല സാറേ ഇന്നുതന്നെ എനിക്ക് ടിക്കറ്റ് വേണം ഇന്ന് തന്നേ എനിക്ക് ടിക്കറ്റ് നോക്കണ ആരെങ്കിലും ക്യാൻസലേഷൻ വന്നിട്ടുണ്ടോ എങ്ങനെയെങ്കിലും അത് ചെയ്യാനുള്ള ഒരു മാർഗം സാറൊന്ന് അന്വേഷിക്കൂ സാറേ സാറൊന്ന് ചെക്കിയ്തേ ഞാന് ഞാൻ ഹോൾഡെയ്യാം സാറേ സാറൊന്ന് നോക്കിയേ ആ എക്സ്ട്രാ പൈസ വേണമെങ്കില് ഞാൻ അധികം പൈസ വേണമെങ്കില് തരാം സാറേ എനിക്കിപ്പോള് എനിക്കിപ്പോള് നിന്നു പോവാൻ എനിക്ക് ആ ആ ടിക്കറ്റ് ബുക്കെയ്ത ടിക്കറ്റ് എനിക്ക് കിട്ടിയേ പറ്റൂ എന്റെ കൂടൊരു നമുക്കൊക്കെ ഇത്രയും എയിജിഡ് അല്ലെയോ പ്രായം ഉള്ളവരായതുകൊണ്ട് നമുക്കത് ഇത്രയും ദൂരം ഒന്നും പോകാൻ പറ്റത്തില്ല തൌസൻഡ് എക്സ്ട്രാ തൌസൻഡ് റുപീസ്ന്ന്ച്ചാല് അത് ഒരുപാട് ധാ കൂടുതലല്ലേ ആയിരം രൂപയൊക്കെ നമ്മളൊരു ടിക്കറ്റ് ഒരു ടിക്കറ്റിന് വേണ്ടി കൊടുത്തിട്ട് വീണ്ടും നമ്മള് തൌസൻഡ് റുപീസൊക്കെ കൊടുക്കുക എന്നു വച്ചാല് ഇറ്റ് ഈസ് നോട്ട് പോസ്സിബിൾ അത് പറ്റത്തില്ല എന്നുള്ള അത് നമുക്കത് ബുദ്ധിമുട്ടാ സാറേ വേറെ കാരണം എന്റേലെ കുഴപ്പം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും വിഷയം ആയിരിക്കും അല്ലാതെ എന്താണ് അല്ലാതെങ്ങനയാണ് അത് വരുന്നത് കമ്പ്യൂട്ടറിന്റെയോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലാതെ ഒന്നും ആയിരിക്കത്തില്ല സാറേ നിങ്ങള് കമ്പ്യൂട്ടറിന്റെ നിങ്ങള് ഒന്നൂടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ വേണ്ടാ അല്ല സാറേ എനിക്കിനി അന്വേഷിക്കാനല്ല എന്റെ ടിക്കറ്റ് ഞാനിവിടെ നില്ക്കണ്ട ഒരു അവസ്ഥയില് എനിക്ക് പറ്റത്തില്ല സാറേ എനിക്ക് നില്ക്കാൻ നില്ക്കാൻ നിന്ന് ട്രാവെലെയ്യാൻ പറ്റത്തില്ല അപ്പോള് അപ്പോള് നിന്ന് ട്രാവലെയ്യാൻ പറ്റാതെ എന്തെങ്കിലും മാർഗമുണ്ടോന്ന് നോയിക്കേ ആ ഓ ഓക്കെ അപ്പോള് അപ്പോള് നിങ് ഞാന് സാറത് എന്താന്നുവച്ചാല് ചെയ്യണം എനിക്ക് വേറെ ഒന്നും പറയാന് മറ്റു കാര്യങ്ങളൊന്നും പറയാനോ ഒ ഒന്നുമില്ല തീർത്തും സാർ തന്നെ അതിന് വേണ്ടുന്ന എന്തുവാന്ന് വച്ചാല് ക്രമീകരിക്കുക ആ ക്രമീകരിച്ച് എനിക്ക് എവിടെങ്കിലും ഇരിക്കാനുള്ള സീറ്റ് കൊടുക്കാനുള്ളത് നോക്കുവാ ഓക്കെ താങ്ക്യു സാർ താങ്ക്യു താങ്ക്യു സാർ താങ്ക്യു താങ്ക്യു ഓക്കെ